ഹലോ ഹലോ ആ സാർ ഞാൻ ഇപ്പഴ് വാടകക്ക് കൊടുത്തിരിക്കുന്ന നമ്മുടെ കെട്ടിടത്തിൽ കുറച്ച് ബില്ല് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചിരുന്ന പാർട്ടി കുറച്ച് കുറേ സാധനങ്ങൾ അവർക്ക് ഉപയോഗമില്ലാതെ അതിൻ്റെ ഇത് കൊണ്ട് കൊണ്ടവർക്ക് കുറച്ച് പൈസ കൂടുതൽ എക്സ്പെൻസ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തിരുന്നു ഇത് അങ്ങനെ അവർ മാറിപ്പോയി ഇപ്പം പുതിയ പാർട്ടിയെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പ നമ്മൾക്ക് അത് കുറച്ചും കൂടെ അവർക്ക് ഇത്ര തന്നെ എമൗണ്ട് വരാത്ത രീതിയിൽ കുറച്ചും കൂടെ എമൗണ്ട് കുറഞ്ഞിരിക്കുന്ന രീതിയിൽ കുറേ ലൈറ്റുകളും കാര്യങ്ങളുമല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് സംഗതികൾ കുറച്ച് എങ്ങനെയാണ് കുറച്ചു കൂടെ നമുക്ക് കുറക്കാൻ പറ്റണേ എന്നൊന്ന് വന്നു നോക്കി ഒരു ഇത് തരണം അത് എത്ര എത്ര രൂപയുടെ ചിലവ് വരുമെന്നും നമുക്ക് അത് എത്ര രൂപയുടെ ഇപ്പം ഇത് ചെയ്തു കഴിയുമ്പം നമുക്ക് എത്ര രൂപേടെ ബില്ല് കുറവ് കിട്ടുമെന്നും ഒന്നു അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പം അത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നതിനെ ഒന്ന് നോക്കി വേണ്ടുന്നത് ചെയ്തു തരാനാണ് തരാനാണ് ഇപ്പം പുള്ളി എന്നെ വിളിക്കുന്നത് ഒന്ന് എന്ന് എന്ന് വരാം വരാൻ സാധിക്കും ശരി ശരി അപ്പോൾ രണ്ട് ദിവസം ഓക്കേ അപ്പോൾ വന്നിട്ട് ഞാൻ നമുക്ക് കണ്ടു കുറച്ചു കൂടെ കാര്യങ്ങൾ സാറെ കുറച്ചു കൂടെയൊക്കെ കാര്യങ്ങൾ വിശദമായി കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സാറിന് ബോധ്യപ്പെടും ഏതൊക്കെ ആണ് നമുക്ക് അവർക്ക് കുറച്ചൊക്കെ ഞാൻ ഞാനും കൂടെ മറ്റേ പാർട്ടിയും കൂടെ വരും ഇപ്പം നമുക്ക് അത് രണ്ട് പേർക്കുമായിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ കൂടിയത് തീരുമാനിക്കാം എന്തൊക്കെയാണ് കുറവ് വരുത്തേണ്ടത് ഏതൊക്കെ കുറവ് വരുത്തിയാൽ കുഴപ്പമില്ല എന്നവർ നോക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തു തരണം ഓക്കേ ശരി ഓ രണ്ട് ദിവസം ഓക്കേ ഓക്കേ ശരി